ആ ഹലോ ബിബിൻസ് ഹോസ്പിറ്റലല്ലേ ആ ഡോക്ടർ അഭിഷേകാണോ ആ ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനപ്പം അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ആ അതെ അതെ ആ ആ എനിക്ക് ഭയങ്കരേ കൈക്കൊക്കെ ഭയങ്കര പേയ്നായിരുന്നു അപ്പോൾ കൈക്ക് പേയ്നുണ്ടെന്ന് പറഞ്ഞിട്ടാരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്നിട്ടെനിക്ക് ടാബ് തന്ന് വിട്ടിട്ടുണ്ടാരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര പെയ്നാണ് കൈയൊക്കെ അനക്കാൻ പോലും പറ്റുന്നില്ല

ആ പറഞ്ഞിട്ടുണ്ടാരുന്നു സ്കാനപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെടുത്ത് പറഞ്ഞു സ്കാനിങ്ങില് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഈ ടാബ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് ടാബ് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായി അപ്പോൾ എനിക്ക് വീണ്ടും പെയ്നിങ്ങനെ കൂടി വരിക ആ നീരുണ്ട് നീരുണ്ട് നല്ല പോലെ ഉണ്ട്

ആ ഓക്കെ ഡോക്ടർ കൈ ഇല്ല മുറിവങ്ങാനൊന്നും ഇല്ല പക്ഷെ കൈക്കാണേലും കാലിനാണേലും ഭയങ്കര പെയ്നാണ് കാലിലും നീര് വെച്ചിട്ടുണ്ട് ഓക്കെ സാ അപ്പം ഞാനിനി ആ ഇപ്പം സാറ് ഡോക്ടറെനിക്ക് തന്നേക്കുന്ന ആ ടാബ്ലെറ്റ് കണ്ടിന്യു ചെയ്യണൊ ഓക്കേ നാളെ ഞാൻ എപ്പത്തേയ്ക്കാണ് വരണ്ടെത് സാർ ആ ഉം ഓക്കെ സാർ ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നതെന്ന് പറയാവോ

ഓക്കെ അതുപോലതന്നെ ഞാനന്ന് ആക്സിഡൻറ്റ് ആയപ്പോൾ എൻ്റെ നെറ്റീയിലൊരു മുറിവുണ്ടാരുന്നു അതന്ന് ഡ്രസ്സ് ചെയ്യിപ്പിച്ചായിരുന്നു വിട്ടത് പക്ഷെ ഇപ്പഴും അതിനാണേലും ഉണങ്ങുന്നൊന്നുമില്ല ഇപ്പഴും അവിടെ വേ അവിടെ ഭയങ്കര പെയ്നാണ് ആ എനിക്ക് ഡ്രസ്സ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടാരുന്നു പക്ഷെ എനിക്ക് ടൈമില്ലാത്തോണ്ട് വരാൻ പറ്റിയില്ല അത് മാത്രമല്ല വേദന ആയത് കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റാത്തകൊണ്ട്

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ ഡോക്ടർ ഓക്കെ ഡോക്ടർ താങ്ക് യൂ